ആ ചട്ടാ പറഞ്ഞോ ആ ഫിഷ് ഫിഷ് ഫിഷ് മാർക്കറ്റ് ചങ്ങനാശേരി ഫിഷ് മാർക്കറ്റ് ആണ് ആ ആ ആ ആ എന്നെ എന്തിനാ ചേട്ടാ കാണേണ്ടത് നമുക്ക് ഇപ്പം തളാഞ്ചിയുണ്ട് ആ തളയുണ്ട് ആ പിന്നെ ചെറിയ ഐറ്റങ്ങളുക്കെ ഉണ്ട് മത്തി അയില ആ പിന്നെ ഏട്ട കൂരിയുണ്ട്

ആ ആ ആ ആ

ചെറിയ മീൻ കിട്ടും ചേട്ടാ ചെറിയ മീൻ വറ്റി കിട്ടും ആ ആ വെട്ടാനിവിടെ ആളില്ലല്ലോ ചേട്ടാ നിങ്ങളിപ്പം ആ നിങ്ങൾ അത് ഇപ്പം മീന് എന്ന് പറയുമ്പഴത്തേക്കും ഇപ്പം മത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് അയില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ട് പിന്നെ തളയ ഉണ്ട് തള നാനൂറ് രൂപ അത് തളയൊക്കെ വെട്ടി ഫ്രഷ് ഫ്രഷ് ആയിട്ട് വരുന്നതാണെ ആ അയില ആ അയില എത്ര കിലോ വേണ്ടത് ഏട്ടാ അഞ്ച് കിലോ നിങ്ങൾക്ക് ആ വേണ്ടി വരുമോ ആ ആ ചേട്ടാ ഈ ഈ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ചെലപ്പം കൊണ്ട് ഞായറാഴ്ച ദിവസം വേണ്ടല്ലോ അല്ലേ അപ്പം ചെല ദിവസങ്ങളിൽ അവിടെ കൊണ്ട് തരാനായിട്ട് ചിലപ്പോൾ ആൾ കാണത്തില്ല അപ്പം നിങ്ങൾ ആൾ ആൾ വിട്ടെടുക്കാൻ പറ്റുമോ ആ ആ അല്ല എല്ലാ ദിവസവും ചിലപ്പോൾ അയില കിട്ടിയെന്ന് വരത്തില്ല അപ്പം വേറെ അന്ന് വേറെ നമുക്ക് മീനുകൾക്ക് മാറ്റം ആ നത്തോലി അത്ര ചെറിയ മീനൊന്നുമല്ല കേട്ടോ ചേട്ടാ ആ ആ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹോസ്റ്റല് മാത്രം ഉള്ളൂ അതോ വേറെ ഹോസ്റ്റലുകള് ഉണ്ടോ അപ്പം ഈ അഞ്ച് കിലോ മീനെന്ന് പറയുമ്പഴത്തേന് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ മീൻ മാർക്കറ്റ്കാരെ സംബന്ധച്ച് തീരെ കുറഞ്ഞ ഒരു അളവ് തന്നെയാ അത് അപ്പം നിങ്ങൾക്ക് ശകലംകൂടെ കടുതൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ

ആ അപ്പം ഈ അയിലയുടെ കൂട്ടത്തിൽ വേറെ മീനുകൾ വല്ലതും നിങ്ങൾക്ക് വേണോ അപ്പം നിങ്ങളുടെ ഈ ഈ ഹോസ്റ്റല് എവിടെയാ ഈ അസംഷം കോളേജിന്റെ അടുത്താണ് അവിടെ അസംഷം കോളേജിന്റെ അടുത്താണെ ഒത്തിരി ഹോസ്റ്റലുകളൊക്കെയുണ്ടല്ലോ അപ്പോൾ എല്ലാവരെയുംകൂടെ കളക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശകലംകൂടെയൊക്കെ മീൻ വില കുറച്ച് കിട്ടും അപ്പം പലയിടത്തെ പലതാകുമ്പോഴത്തേക്കെ ഒത്തിരി തൂക്കം ആ അറിയാം അറിയാം അറിയാം അവിടാ അല്ലേ അപ്പം നിങ്ങൾ ഹോസ്റ്റ്ല് എന്ന് പറയുമ്പം ഒത്തിരി കുട്ടികളൊക്കെ ഉള്ളതണോ അപ്പം കുറച്ചുകൂടെയൊക്കെ കൂടുതൽ മീൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ആ ആ അപ്പം എന്ന് തൊട്ടാ നിങ്ങൾക്ക് മീൻ വേണ്ടത് ആ അപ്പം കുഴപ്പം ഇല്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് മീൻ കൊടുത്ത് വിടുന്നതായിരിക്കും കേട്ടോ നാളെ രാവിലെ തന്നെ കൊടുത്ത് വിടുന്നതായിരിക്കും ആ ഓക്കെ ഓക്കെ കട്ട് ചെയ്തേക്കട്ടെ